മലയാളം നമ്മുടെ മാതൃഭാഷയാണ് നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഭാഷയാണ് മാത് നമ്മുടെ മലയാളം നമ്മുടെ മലയാളത്തിൽ ഒരുപാട് മഹാന്മാരായ കവികൾ കഥ കഥയെഴുതുന്ന മനുഷ്യ വ്യക്തികളും ഒക്കെയുണ്ട് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അദ്ദേഹം ഒരുപാട് കൃതികളെഴുതിയിട്ടുണ്ട് അതുപോലെ പ്രമുഖരാണ് ഒ എൻ വി കുറുപ്പ് കു കുഞ്ചൻ നമ്പ്യാർ ഇങ്ങനെ ഒരുപാട് സുഗതകുമാരി അമ്മയുടെ കവിതകളൊക്കെ വളരെ മനോഹരമാണ് ഇതൊക്കെ കേട്ടാലും കേട്ടാലും നമുക്ക് മതിവരില്ല ഇതുപോലെ ബാലാമണിയമ്മ പിന്നെ ഇവരൊക്കെ മലയാളത്തിലെ പ്രമു പ്രമുഖ എഴുത്തുകാരാണ് ഇതിൽ മാധവിക്കുട്ടി അമ്മയുടെ കൃതികൾ വായി വായിച്ചാൽ പിന്നെയും പിന്നെയും നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അതുപോലെ വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബെന്യാമിൻ എഴുതിയ ആട് ജീവിതം എന്ന കൃതിയാണ് പ്രവാസിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ആ രചനയിൽ പറഞ്ഞിട്ടുണ്ട് അത് വാ ആട് ജീവിതം നമുക്ക് എത്ര പ്രാവശ്യം വായിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും അത് വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നും പിന്നെ അത്രക്ക് മ മനോഹരമായിട്ടാണ് അദ്ദേഹം ആ അദ്ദേഹം ആ കാ രചനയിൽ പ്രവാസിയുടെ ജീവിതവും അവൻ്റെ കഷ്ടപ്പാടുകളും അവൻ വീടിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതും ഒക്കെ വിവരിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരുപാട് രചനകളും ഒരുപാട് പ്രമുഖരായ കവികളും രചയിതാക്കളും ഉള്ള ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം നമ്മുടെ മലയാള ഭാഷയെന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒന്നാണ് വേറെ ഒരു ഭാഷക്കും ഇത്രയും മഹത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുന്നത് നമ്മുടെ മലയാള ഭാഷയാണ് വേറെ ഒരു രാജ്യക്കാർക്ക് നമ്മുടെ ഭാഷ നമ്മൾ സംസാരിക്കും പോലെ സംസാരിക്കാൻ കഴിയില്ല അതാണ് മലയാള ഭാഷയുടെ ഒരു പ്രത്യേകത മലയാള ഭാഷ എന്നും നമുക്കഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഭാഷ തന്നെയാണ്